ഭാരതീയ സംസ്കാരത്തിൽ ഇതുപോലുള്ള ആചാരങ്ങൾ ഹൈന്ദവ മതവുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും അതുപോലെ തന്നെ നോമ്പുകൾ നോമ്പുകൾ മൂന്ന് മതത്തേയും ഈ ക്രിസ്തു മതമാണെങ്കിലും ഹൈന്ദവ മതമാണങ്കിലും ഇസ്ലാം മതമാണെങ്കിലും മൂന്ന് മതത്തിലും നോമ്പുകൾ നമുക്ക് കാണുവാൻ സാധിക്കും ആ നോമ്പ് ശരീരത്തേയും മനസ്സിനേയും ശുദ്ധമാക്കിയിട്ട് നല്ല ചിന്തകളോടെ ഒരു കാലം എന്ന് വേണമെങ്കിൽ പറയുവാൻ സാധിക്കും നല്ല ചിന്തകളോടെ നല്ല പ്രവൃത്തികളോടെ ചില വേണ്ട വയ്ക്കലുകളിലൂടെ ചില സഹനങ്ങളിലൂടെ ശരീരത്തേയും മനസ്സിനേയും ഒന്ന് ശുദ്ധീകരിക്കുന്ന ദിനങ്ങൾ കൂടിയാണ് നോമ്പുകൾ മറ്റ് ആചാരങ്ങളൊക്കെ ഹൈന്ദവ മതമായിട്ട് ബന്ധപ്പെട്ടതാണ് അതുപോലെ തന്നെ രങ്കോലി മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറേ ആചാരങ്ങളാണ് സൂര്യന് വെള്ളം അർപ്പിക്കുക നെറ്റിയിലെ കുങ്കുമം പൂണൂൽ ധരിക്കൽ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് പോകൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹൈന്ദവ മതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഒരു ഹൈന്ദവ മത വിശ്വാസിയല്ല അതുകൊണ്ട് തന്നെ വ്യക്തമായൊരു ധാരണ അതേക്കുറിച്ചില്ല പക്ഷേ നോമ്പുകളൊക്കെ നമ്മുടെ ആരാധനയുമായിട്ട് നമ്മുടെ മതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്നു